ഗ്രാമ പ്രദേശങ്ങളിലെ ആളുകൾ നിയമപരമായി സേവ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന കാര്യം മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം അതായത് ഈ ട്രാഫിക്കാണ് അത് ട്രാഫിക് പോലീസ് സ്റ്റേഷനുണ്ട് പോലീസനുബന്ധിച്ച് നിൽക്കുന്ന ഈ ട്രാഫിക് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ ട്രാഫിക് പോലീസ് നിൽക്കുന്നിടത്ത് ഇഷ്ടം പോലെ തന്നെ തിരക്കായിരിക്കും അത് എന്തുകൊണ്ടെന്നാന്ന് ഞങ്ങക്കിപ്പോഴും മനസ്സിലാകുന്നില്ല അതൊരു വ്യക്തിയോ അല്ലെങ്കിൽ അത് ഓടിച്ച് വണ്ടി ഓടിച്ച് വരുന്ന വ്യക്തികൾ സ്വ സ്വ മനസ്സാലെ സിഗ്നൽ നോക്കി പൊയ്ക്കോളും പക്ഷെ ഈ പോലീസ് നിൽക്കുന്നിടത്ത് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് അവിടെ ഈ ട്രാഫിക് ബുദ്ധിമുട്ട് പലപ്പോഴൊരു കണ്ട് പൊ കണ്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ എന്താണെന്നു വെച്ചാൽ സേവനങ്ങൾ എന്നു പറയുന്നത് ഗ്രാമ പ്രദേശങ്ങളിൽ അധികം നമുക്ക് അങ്ങനെ തോന്നാനായിട്ട് ഇപ്പോൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമ്മളവിടെ ഇപ്പം എന്തെങ്കിലുമൊരു ക്ക് എന്തെങ്കിലുമൊരു പരാതിയായിട്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ചെന്നു കഴിഞ്ഞാൽ അവർ പരാതി എഴുതി മേടിച്ചെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാം അതവിടെ വെച്ച് പിന്നത് ശ്രദ്ധിക്കാതെ പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ വീണ്ടും വീണ്ടും അത് ഞാൻ നോക്കാം നിങ്ങൾ പൊയ്ക്കൊ നിങ്ങൾ പൊയ്ക്കോയെന്നു പറയും അതുപോലെതന്നെ ഇപ്പോൾ വക്കീലിനെ കൊണ്ട് പോകുന്നെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതായത് പി പെട്ടെന്നു നമുക്കാ ഒരു പരാതിയുടെ ഉത്തരം നമുക്ക് കിട്ടാറില്ല പരാതിക്കനുസരിച്ചുള്ള ഉത്തരം ചിലപ്പോൾ കണ്ടിട്ടില്ല അത് ഒരു ശതമാനം എന്നു പറയില്ല കുറച്ചൊക്കെ അങ്ങനെയാണ് ചിലതൊക്കെ നമുക്ക് വേം കണ്ടുപിടിക്കുന്ന കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ അനുഭവിക്കണ ബുദ്ധിമുട്ടെന്നു പറയുന്നത് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ട്രാഫിക് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലാതെ വേറെ പ്രത്യേകിച്ച് പോലീസുകാരെ കൊണ്ട് ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല പിന്നെ ചില സമയങ്ങളിൽ ആ അതായതിപ്പോൾ എന്താപറയുക ഹെൽമറ്റില്ലാതെയും ഒക്കെയും പിടിക്കുന്ന പോലീസ് പിടിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് അതായത് എന്താപറയുക ധൃതി വെച്ച് നമ്മൾ സ്പീഡിൽ ഇപ്പോൾ രോഗിക്ക് വയ്യാതെ കൂടെ കൊണ്ടുപോകുകയാണ് ആ രോഗിയെ എത്രയും വേഗം നമ്മൾ ഹോസ്പിറ്റൽ എത്തിക്കണമെന്നൊക്കെ ചോദിക്കുന്ന ചെല്ലുന്ന സമയത്ത് ഇവരുടെ കുറേ ചെക്കിങ് കാരണം ലെയ്റ്റായി പോകുന്ന കുറേ ബുദ്ധിമുട്ടുകളും നമുക്ക് തോന്നിയിട്ടുണ്ട് അതല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിട്ടില്ല പക്ഷെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ പോലീസുകാർ നിൽക്കുന്നിടത്ത് ഗ്രാമ പ്രദേശങ്ങളിലായാലും ഈ പോലീസ് സ്റ്റേഷനിലായാലും നമ്മൾ കാണുന്നൊരു ബുദ്ധിമുട്ട് അവരുള്ളിടത്ത് ഈ ട്രാഫിക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചില കാര് കേസുകൾക്കൊക്കെ വേഗം പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും ചിലതിനൊക്കേ അവർ നീട്ടി ക്കൊണ്ടുപോകുന്നതും അങ്ങനെയും കണ്ടിട്ടുണ്ട്